ഹലോ ആരായിരുന്നു ആ പറയൂ എന്താണ് എന്തായിരുന്നു ഓക്കെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പനി അല്ലാതെ ഓക്കെ ഓക്കെ ഓക്കെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ ഓക്കെ വെള്ളം കുടി അങ്ങനെ എന്തെങ്കിലും വെള്ളം കഴിക്കുന്നതിൽ കുറവുണ്ടോ സാധാരണ നോർമൽ ആയിട്ടുള്ള കുടിക്കണ്ട വെള്ളം കഴിക്കൽ കുടിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ യൂറിനിൽ എന്തെങ്കിലും കളർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ലക്ഷണം കണ്ടിട്ട് ഇപ്പം പേടിക്കാനായിട്ട് ഉള്ളതായിട്ട് ഒന്നും തോന്നുന്നില്ല എന്തായാലും ഞാൻ എന്ത് ചെയ്യാം മരുന്ന് തരാം അത് കഴിച്ച് നോക്കിയിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷവും യാതൊരു മാറ്റവും കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ബ്ലഡ് യൂറിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഓക്കെ ശരി വേറെ എന്തെങ്കിലും

ആ ഓക്കെ ശരി ശരി താങ്ക് യൂ